കേരളമെന്ന സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാള ഭാഷയ്ക്ക് ഉയർന്ന പങ്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാനും കുട്ടികളിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ പോലും അവരുടെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമെന്ന രീതിയിലേയ്ക്ക് മാറ്റിക്കൊണ്ടുവരികയാണ് മലയാളത്തിന് എന്താ എന്താ പറയുക കുട്ടികൾ ഇംഗ്ലീഷാണ് പഠിക്കുന്നതെങ്കിൽ പോലും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് അവരവരുടെ മാതൃഭാഷാ മലയാളമെന്നതിൽ കേരളീയരെന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു മലയാളഭാഷ മൂലം എന്താ പറയുക പുറത്ത് അന്യസംസ്ഥാനങ്ങൾ നമ്മളെ മലയാള ഭാഷയ്ക്ക് വാല്യു ഇല്ലെങ്കിൽ പോലും കേരളത്തിൽ ഒന്നാം സ്ഥാനമാണ് മലയാള ഭാഷയ്ക്ക് ഇന്ന് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നൽകുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും മാതൃഭാഷയായ മലയാളത്തിൽ മുഖ്യ പങ്ക് നമുക്ക് വഹിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്